ഹലോ ഞാൻ കോയമ്പത്തൂർ നിന്ന് വിളിക്കുന്നതായിരുന്നേ അപ്പം ഞാൻ നെക്സ്റ്റ് മന്ത് ഒന്ന് കോഴിക്കോട് വഴി വരുന്നുണ്ട് കേരളം ഓൾമോസ്റ്റ് എല്ലാ കേരളത്തിലൊക്കെ ഒന്ന് ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്തിട്ടു വരുന്നെയാണേ അപ്പോൾ എനിക്ക് ജസ്റ്റ് അവിടുത്തെ സീ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നല്ല സീ ഫുഡൊക്കെ എവിടെയാണ് കിട്ടാന്നറിയാൻ വേണ്ടീട്ടൊക്കെയാരുന്നേ കോണ്ടാക്ട് ചെയ്യുന്നത്

ആ ഓക്കെ

ഓക്കെ ഇവിടെ സീ ഫുഡ് മാത്രമായിട്ടാണോ അവിടെയൊക്കെ സ്പെഷലൈസ് ചെയ്യുന്നത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ സീ ഫുഡില് ഓൾമോസ്റ്റ് ഉള്ള ഫിഷസും കാര്യങ്ങളുമൊന്നും വലിയ ക്ലിയർ ആയിട്ട് അറിയത്തില്ല ഇപ്പോൾ ഈ ഓൾമോസ്റ്റ് എങ്ങനെയാണ് ഫിഷ് മാത്രമാണോ വരിക

ഓക്കെ ഈ ക്രാബ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വരില്ല

ഓൾമോസ്റ്റ് ആ ഓക്കെ എല്ലാം തന്നെ നമുക്ക് ചെയ്യാമല്ലേ ഓക്കെ അല്ല നമുക്കിപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നമ്മളങ്ങനെ ഒന്നും ചൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് ഉള്ള ഫിഷെസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾമോസ്റ്റ് വരുന്നത് എന്തൊക്കെയാണെന്ന് പറയുവാണെങ്കിൽ നമ്മള് അതിൽനിന്ന് ചൂസ് ചെയ്തിട്ട് ആ ഐറ്റംസ് മാത്രം നമുക്ക് പ്രിപ്പയറ് ചെയ്ത് തരാൻ കഴിയില്ലേ ആ ഓക്കെ അപ്പം ഞാന് ഓൾമോസ്റ്റ് ഈ മന്ത് ഒരു ലാസ്റ്റ് ചിലപ്പോൾ ഈ മന്ത് ലാസ്റ്റ് ആകുമ്പഴത്തേക്കും എത്തും ചിലപ്പോൾ അടുത്ത മന്തേ എത്തുകയുള്ളു അപ്പം ഞാൻ കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തതിനു ശേഷം നിങ്ങളെ ഈ ഫിഷെസിൻ്റെ ഇതൊക്കെ ഞാൻ ഡീറ്റൈൽഡ് ആയിട്ടൊന്നു പറയ് ഈ ഇപ്പം പറഞ്ഞു തരുവാണേൽ ഞാൻ ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറയാം അന്നേരം ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ആ ഡേറ്റിലേക്ക് നിങ്ങളത് പ്രിപ്പയറ് ചെയ്തു തന്നാൽ മതി ഇല്ല നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്ഥലങ്ങള് തന്നെ മതി അത്യാവശ്യം നല്ല എന്താ പറയുക ക്വാളിറ്റിയുള്ള സ്ഥലങ്ങള് തന്നെ ചൂസ് ചെയ്യാം കാരണം നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലങ്ങനെ എന്താ പറയുക ചാൻസ് എടുക്കാൻ പറ്റില്ല ഫാമിലിയൊക്കെ ഉള്ളതാണ്

ഓക്കെ ആ നിങ്ങള് നമുക്ക് പ്രിഫർ ചെയ്യുന്നതെങ്ങനെയാണ് ബെറ്റർ ആയിട്ട് പ്രിഫർ ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിന് അനുസരിച്ചു ചെയ്തോളാം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എങ്ങനെ ടേസ്റ്റി ആണോ നിങ്ങള് ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ അപ്പം ഞാനെന്തായാലും നോക്കിയിട്ട് നിങ്ങളെ വിളിക്കാം നിങ്ങള് എനിക്ക് ഉള്ള ഫിഷെസ് എന്താന്നു വെച്ചാൽ സീ ഫുഡിൻ്റെ ഏതൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് ഡീറ്റൈൽഡ് ആയിട്ട് അയച്ചു തരുവാണേൽ ഞാന് ഒന്നു ചൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറയാം ആ ഓക്കെ ആ മെനു ഒന്നയച്ചാൽ മതി ഓക്കെ താങ്ക്യൂ സർ എന്തായിരുന്നാലും നിങ്ങള് ഒന്നയച്ചിട്ടേക്ക് കേട്ടോ ആയിക്കോട്ടെ ഓക്കെ എന്നാൽ